ആ ഹലോ ഇത് ഡെലിവെറി ബോയ് ആണോ ഞാന് ഫ്ലിപ്ക്കാർട്ടിൽ ഒരു ബെഡ്ഷീറ്റ് ആണ് ഓര്ഡർ ചെയ്തിരുന്നത് പക്ഷെ എനിക്ക് കിട്ടിയത് ചുരിദാറാണ് അപ്പം ഇത് ഞാൻ എന്ത് ചെയ്യണം ഇത് വിളിച്ച് ഇന്ഫോം ചെയ്താൽ മതിയോ അതോ നിങ്ങൾ ഇവിടെ വരുമോ അതൊ റിട്ടേണ് ചെയ്യണോ എന്താണ് ഞാന് ചെയ്യണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ ഓക്കെ ഞാൻ ഇതിൽ റിട്ടണ് എന്നുള്ളതിന്റെ പ്രെസ്സ് ചെയ്തിട്ട് ഇതിലെ ആളുമായിട്ട് അതിൽ പറയുന്നത് അനുസരിച്ച് ചെയ്യണമായിരിക്കും അല്ലെ ഓക്കെ ഓക്കെ ഞാൻ അതു പോലെ ചെയ്യാമേ അപ്പം ഇത് നിങ്ങൾ തന്നെ തിരിച്ച് വന്നു എടുത്ത് കൊള്ളുമല്ലോ അല്ലെ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ആള്ക്കാർ വരും എന്നല്ലെ ഓക്കെ അതിന് ഞാൻ ഇപ്പോൾ ഈ ഇത് ക്യാന്സല് ഈ ഓഡറ് റിട്ടണ് ചെയ്യുകയാണെന്നുള്ള ആ ഒരു പേജിൽ പോയിട്ട് അത് പ്രെസ്സ് ചെയ്താൽ മതിയാരിക്കുമല്ലോ ആ ഓക്കെ ആ ശരി ശരി ശരി ഓക്കെ അ ഞാൻ അതുപോലെ ചെയ്യാം അപ്പം ഞാൻ റിട്ടണ് എന്നുള്ളത് പ്രെസ് ബട്ടന് ചെയ്തിട്ടുണ്ട് അവർ അതിൻ്റകത്ത് പറയുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിൽ വന്നു റിട്ടേണ് ചെയ്തോളും എന്ന് പറയുന്നുണ്ട് അവർ ഡെലിവറി ബോലി വരുമ്പം ഞാൻ അത് തിരിച്ചു കൊടുത്തോളാം ഓക്കെ താങ്ക് യു അപ്പോൾ അതെന്റെ അക്കൗണ്ടിലോട്ട് തന്നെ ക്യാഷ് വരുമായിരിക്കുമല്ലോ അല്ലെ അതോ വേറെ സാധനം ആയിരിക്കുമോ കിട്ടുന്നത് ഓ എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാമെന്നോ ഓക്കെ താങ്ക് യു ശരി സര് താങ്ക് യു താങ്ക് യു ഞാന് എന്നാൽ വേറെ പകരം എന്തെങ്കിലും സാധനം മേടിച്ചോളാം ഓക്കെ താങ്ക് യു